ഞാനൊക്ക സ്കൂളിൽ പടിച്ചതിൻ്റെ അന്ന് സ്കൂള് ലൈബ്രറി ഒന്നുമില്ല ഇപ്പോഴൊക്കെയാണെങ്കിൽ സ്കൂളിലൊക്കെ ലൈബറി ഉണ്ട് വായനശാലയിലുണ്ട് പഞ്ചായത്തിലുണ്ട് അങ്ങനെ ഒക്കെ എല്ലോത്തുവുണ്ട് കുട്ടികൾക്ക് വാങ്ങാനും പടി വായിക്കാനുമൊക്കെ നല്ല സുഖമാണ് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അങ്ങനെ ഒക്കെ നല്ല സുഖമാണ് ഞാനൊക്കെ പഠിച്ച ഒരു സ്കൂളിൽ നല്ലോണം ഒരു മലയിലാണ് പെര അപ്പം അങ്ങനെ വാങ്ങാനും കിട്ടില്ല അങ്ങനെ വലിയ ഒരു ലൈബറി അങ്ങനെ ബുക്കുകളൊന്നും വാങ്ങ്യാണ്ട് വായിച്ചതൊന്നും ഓർമ്മയില്ല പിന്നെ ഈ പത്രം ഇടുന്ന ആൾക്കാർ അവരോട് പറയുമ്പം ബാലരമ പൂമ്പാറ്റ മലർവാടി പൂച്ചപ്പോലീസ്സ് അന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ബുക്കേനി കഥ ബുക്കുകൾ അതൊക്കെ വാങ്ങിയാണ്ടൊക്കെ ഇങ്ങനെ വായിച്ച ഓർമ്മയുണ്ട് പിന്നെ യൂപ്പി സ്കൂള് പടിച്ചതിൻ്റെ അന്ന് ഈ ഒരു മത്സര പരീക്ഷ യൂറീക്ക എന്ന് പറഞ്ഞിട്ട് ഒരു പരിക്ഷയുണ്ട് അതിന് പൈസ അടക്കുമ്പോൾ അതിനൊരു ബുക്ക് കിട്ടും അതുപ്പ ഈ കഥ ബുക്കിൻ്റതിക്കത്തെ ബുക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒക്കെ വായിച്ച ഓർമ്മ എന്നല്ലാതെ ഇപ്പോൾ പിന്നെ കുട്ടികൾ വായനശാലയിൽ നിന്നും ലൈബ്രറീന്നൊക്കെ കൊണ്ടന്ന്കാണ്ട് നല്ലോണം പുരയിൽ ഉണ്ടാവും അപ്പം ഒക്കെ ഏതെങ്കിലും ബുക്കൊക്കെ എടുത്ത് വായിച്ചു എന്നല്ലാതെ ഇപ്പോഴത്തെ മാതിരി ഒന്നും അന്ന് ബുക്കുകളൊന്നും കാണലുമില്ല എല്ലാണു കിട്ടില്ല അതാണ് പിന്നെ അന്ന് ഒരു ഗ്രാമത്തിലാണ് പെര അതും ഉള്ളിൽ മലയിലാണ് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങാടിയിലൊക്കെ പോയി മാങ്ങാച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അതിനുള്ള പൈസ ഉണ്ടാവില്ല അന്നൊന്നും ഇപ്പോഴത്ത കുട്ടികളങ്ങബനെ ഒന്നുമല്ല നല്ല ഇതാണ് അവർക്കും എല്ലാത്തിനും നല്ല സൗകര്യം പിന്നെപ്പോയ് ഓൺലൈനായിട്ട് വാങ്ങാനും കിട്ടുന്നത് കൊണ്ട് നല്ലോണം വാങ്ങും മക്കളെ അടുത്തൊക്ക അങ്ങനത്തെ വലിയ വലിയ ബുക്കുകളെ ഓല് വാങ്ങ്യാണ്ട് വായിക്കും അപ്പം അതൊക്കെ കൊണ്ടു വയ്ക്കുമ്പോൾ വായിച്ച് നോക്കുക എന്നല്ലാതെ പിന്നെ അറിയില്ല കിട്ടില്ല